ഇപ്പോൾ നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിനു വേണ്ടി മാത്രമുള്ളൊരു സംസ്കാരവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതായത് കോഴിക്കോട് ജില്ലയിലും നമ്മൾ ചെയ്യുന്നതെന്നു വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഡ്രസ്സിംഗ് സ്റ്റൈൽ തന്നെ നല്ലൊരു രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുറമേനിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ സാരിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പല രീതിയിലുള്ള ഇവർക്ക് തോന്നും ഇപ്പോൾ ഇവരെന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നതെന്നൊക്കെ തോന്നും ഇപ്പോൾ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരത് ഡ്രസ്സ് അനുകരിക്കാനും അപ്പോൾ അവർക്ക് ധരിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും ഇങ്ങനത്തെ ഒരു നാടൻ സ്റ്റൈലുള്ളൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ വിദേശികളിപ്പോൾ ഒരു സായിപ്പും മദാമയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സായിപ്പ് സായിപ്പ് കൂടുതലായിട്ടും മുണ്ടും ഷർട്ട് ഒക്കെ ഉടുക്കാനൊക്കെ ആഗ്രഹിക്കും നമ്മളെ മലയാളികളെ കാണുമ്പോൾ ഉള്ളതുപോലെ പിന്നെ മലയാളി പെൺകുട്ടികളെ കാണുമ്പോൾ ഈ എന്താ പറയുക ഈ മദാമ്മയ്ക്കും ഇതേപോലെത്ത ന്നെ ഒക്കെ ആയിരിക്കും അങ്ങനെ പല രീതിയിലും അവർക്ക് നമ്മളെപ്പോലെ അനുകരിക്കാനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് ഇപ്പോൾ ഇവർക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പരിപാടികളുണ്ട് ഇപ്പോൾ കൈകൊട്ടിക്കളി ഇപ്പോൾ കഥകളി അങ്ങനെ പല രീതിയിലുള്ള കളികളും കാര്യങ്ങളൊക്കെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ്